മത്സ്യബന്ധനം നടത്തുമ്പോൾ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന് വെച്ചാൽ ശാന്തമായിരിക്കുന്ന കടൽ പെട്ടെന്ന് ചിലപ്പോൾ അശാന്തമായി തുടരും തിരകൾ കൂടുതൽ വരാറുണ്ട് കാറ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വെല്ലുവിളിയാണ് കാരണം കാറ്റൊക്കെ നല്ല കൂടുതലായി വന്ന് കഴിഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന ബോട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ വഞ്ചിയായിക്കോട്ടെ ദിശമാറാൻ തുടങ്ങും അതുപോലെ മഴ മഴ നി ചെറിയ മഴയാണെങ്കിൽ കുഴപ്പമില്ല ഇടി മിന്നലോടുകൂടി വലിയ മഴയെല്ലാം വന്നാൽ എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് അത് നമക്ക് ബോട്ട് നിയന്ത്രിക്കാനും അതുപോലെ മുന്നിലുള്ളത് കാണാനും എല്ലാം പ്രശ്നങ്ങളായി വരും പിന്നെ ബോട്ടിൽ പോകുമ്പോൾ എന്തായാലും നമ്മൾ കടലിൽ പോകുമ്പോൾ അതിനുള്ള സേഫ്റ്റി എന്തായാലും കാണണം ഇപ്പോൾ വെള്ളത്തിൽ ആയത്കൊണ്ട് എന്തും സംഭവിക്കാം അതെല്ലാമാണ് അതുതന്നെയാണ് ചുഴലി കാറ്റ് ചുഴലി കാറ്റ് പോലുള്ളതെല്ലാം വന്നുവെന്ന് വെച്ചാൽ നല്ല ദുരന്തം വരാനുള്ള ഒന്നാണ് കാരണം ബോട്ട് ചിലപ്പം മറിയും അതിലുള്ള ആൾക്കാരെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും വിഷമകരമായ കാര്യം പറഞ്ഞു വെച്ചാൽ ഇതുപോലുള്ള അപകടങ്ങൾ പ്രകൃതിദത്തമായ അപകടങ്ങൾ വന്നു വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെയാണ് പ്രശ്നം കാരണം ആ കടലിൽ വീണ് വെച്ചാൽ മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയുക എന്നത് കുറച്ചേ പറ്റുകയുള്ളൂ അല്ലാതെ കൂടുതലായിട്ട് നമുക്ക് അവരെ രക്ഷിക്കാനോ അവരെ കെയർ ചെയ്യാനോ പറ്റില്ല കാരണം ഈ വെള്ളം ഇങ്ങനെ കൂടി കൂടി വരും പിന്നെ ഉപ്പ് വെള്ളമാണ് അത് എല്ലാവർക്കും ചേരില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് തരണം ചെയ്യാൻ നമ്മൾ വൺ ബോട്ടിൽ എന്തായാലും സേഫ്റ്റി സേഫ്റ്റിക്ക് വേണ്ട കാര്യങ്ങൾ എന്തായാലും കരുതണം അല്ലാതെ പിന്നെ കാലാവസ്ഥയെ കുറിച്ച് നമ്മൾ എന്തായാലും നമുക്ക് നല്ല ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ വേണം കാലാവസ്ഥ എങ്ങനെയാണ് കാലാവസ്ഥയിൽ വ്യത്യാസം വന്നു എന്നു വെച്ചാൽ തിരിച്ച് വരാനെല്ലാം സാധിക്കും ഇതൊക്കെയാണ് തരണം ചെയ്യാനുള്ള കാര്യങ്ങൾ